ഇപ്പോഴത്തെ യുവാക്കൾ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങൾ യൂറോപ്യൻ കൺട്രി കൺട്രിയിലേക്കാണ് അവിടെ ചെന്ന് കഴിഞ്ഞ് അവർ പഠിച്ച ജോലിയോ ആദ്യം ആദ്യമൊക്കെ അവർ പഠിച്ച ജോലിയോ അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന ജോലിയോ ഒന്നും തന്നെ കിട്ടാൻ സാധ്യത ഇല്ല കിട്ടത്തില്ല അത് അതുകൊണ്ട് അവരെ ഏതെങ്കിലും ചെറിയ ജോലികൾ അവരുദ്ദേശിക്കാത്ത ജോലികളെ പെട്രോൾ പമ്പായിരിക്കും അല്ലെങ്കിൽ ക്ലീനിങ്ങായിരിക്കും അല്ലെങ്കിൽ ചെറിയ ചെറിയ ഈ കഫ്റ്റീരിയ പോലത്തെ കടകളിലായിരിക്കും ഏതെങ്കിലും ഇങ്ങനെ ഇങ്ങനെ ചെറിയ കട ഈ പലച്ചരക്ക് കടകൾ പോലത്തെ ചെറിയ ചെറിയ കടകളിലും മിക്കവരും ക്ലീനിങ് ജോലികളാണ് വെച്ചാൽ അവർ അവർ കിട്ടുന്നില്ല അതുകൊണ്ട് അവരത് ചെയ്തു പോകുന്നു അങ്ങനെ ചെയ്ത് ചെയ്ത് ഇങ്ങനെ ജീവിതം മാറ്റുന്നു പക്ഷേ അവരുദ്ദേശിക്കുന്ന സമയത്തോ ഒന്നും ചിലപ്പോൾ അവിടെ താമസം തന്നെ അവർക്ക് ഭയങ്കര ദൂരെയായിരിക്കും താമസിക്കുന്നത് യാത്ര യാത്ര ഉണ്ട് ഇതെല്ലം കൂടെ നോക്കുമ്പോഴത്തേക്ക് അവരുടെ അവരുടെ പ്ലാനുകൾ കംപ്ലീറ്റ് തെറ്റിക്കുംന്നുള്ള തെറ്റിയുള്ള പോക്കാണ് അവർ പോണത് കൂടുതലും